സമൂഹത്തിലെ പല കുറ്റങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരില്ല എന്നു പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ് വാർത്താമാധ്യമങ്ങൾക്ക് ഒത്തിരി സ്വാതന്ത്ര്യമുള്ളതും അധിക സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണ് നമ്മടേത് ഇന്ത്യ വിവരങ്ങളുടെ എങ്ങനെയായിരിക്കും വാർത്തകളുടെയും വിവരങ്ങളുടെയും പ്രാധാന്യം വിലയിരുത്തുന്നതും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാധ്യമങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ടെന്നു നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽപ്പോലും ഇതിൽ വരുന്ന വാർത്തകൾ വളരെ ഒരു എൻ്റെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് വളരെ അതായത് പൈസ കൊടുത്തുള്ള മാധ്യമങ്ങളാണ് ഇന്നു കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഒരു പരിധിവരെ അവരെ മാധ്യമങ്ങൾ അവരുടെ ധർമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതുകൊണ്ടാണ് പലരീതി ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവുന്നത് എന്താണോ അവർ നിഷ്പക്ഷ നിഷ്ക്രിയമായിരിക്കുന്ന പ്രവർത്തി അവരതിൻ്റെ പുറത്തോട്ടു പോകുന്നുണ്ടൊരു കാരണം ഇന്ന് മാറി മാറി വരുന്ന സർക്കാരുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഒരു ഒരു ഭരണകക്ഷി വരുമ്പം അവർക്ക് അനുകൂലമായി നിൽക്കാനാണ് മാധ്യമങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷത്തിന് എതിരായും കാരണം അങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുകയുള്ളൂ അപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നു പറയുന്നത് മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തണം ഉദാഹരണമായിട്ട് ജനങ്ങളിൽ കോളിളക്കം ഉണ്ടാകാവുന്ന വിഷയങ്ങൾ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പലരും കൃത്യമായ രീതിയിലല്ല ഇനി ഒരു അപകടം നടന്നു ഈ അപകടം നടക്കുമ്പോൾ കേരളം മൊത്തം ഈ അപകടത്തെക്കുറിച്ച് മാധ്യമത്തിലൂടെ ചർച്ച ചെയ്യുന്നതും കാരണങ്ങളും ആവശ്യമുണ്ടോ യഥാർഥത്തിൽ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലയെന്നു തന്നെയാണ് ഇനി മദ്യവും മയക്കുമരുന്നുമായി യുവാക്കൾ ഇറങ്ങുന്നു അങ്ങനെ നടക്കുന്നു ഒരു പരിധിവരെ കാണിക്കാം പക്ഷെ എല്ലാ ദിവസവും ഇതു തന്നെയാവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇനി യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളുടെ ആവശ്യമായ വാർത്തകൾ എത്തിക്കുകയും ആവശ്യമില്ലാത്ത വാർത്തകൾ കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുകയുമാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ വെറും വാർത്തകളെ രാഷ്ട്രീയവൽക്കരിക്കാതെ ജനസമൂഹത്തിന് ആവിശ്യമായ രീതിയിൽ അവയെ നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും ആ മാധ്യമം അവരുടെ കാഴ്ച്ചപ്പാടോ അല്ലെങ്കിൽ ഏതു മാധ്യമ ചാനലാണെന്നു പറഞ്ഞാലും അവർക്കും ഉള്ളൊരു രാഷ്ട്രീയ ചേരിയുണ്ട് ആ നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാധ്യമ ചാനലുകളെല്ലാം തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബല പിൻബലത്തോടു കൂടിയാണ് നിലനിൽക്കുന്നത് അതാണ് ഈ വാർത്തകൾ ഒരു പരിധിവരെ എത്താത്തതിൻ്റെ പ്രധാനമായ കാരണം അപ്പം ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ തന്നെ ഇതിനെ എത്തിക്കുക പൂർണ്ണമായി സത്യങ്ങൾ വിളിച്ചു പറയുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്